ആ ഹലോ ആ ഓ ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ ആ ആ പിന്നെ നമ്മളെ ഈ കൊല്ലത്തെ ക്രിസ്മസേ നമ്മളെല്ലാം പിന്നെ ഏകദേശം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുപത്തഞ്ചാം തീയ്യതിയാ ക്രിസ്മസ് അപ്പം ഇരുപത്തിനാലാം തീയ്യതി വൈകുന്നേരമോ ഇരുപത്തിമൂന്നാം തീയ്യതി വൈകുന്നേരമോ മൂന്നര മുതൽ ആറര വരെ നമ്മൾ കുമ്പസാരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ

ആ അത് ചെയ്യാം അതൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ അതീ ജോലിയുള്ളവരോ അല്ലെങ്കിലും പുറത്തുള്ളവരുമൊക്കെ അവർ ഇന്ന് ആ കൃത്യസമയത്തൊന്ന് വരാൻ പറ്റുമോ ഇല്ലയോയെന്ന് നമുക്കറിയാം മ്മ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട പള്ളിയിൽനിന്ന് ഞാനതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തരാം നിങ്ങളെ സമയമുള്ളപ്പം വന്നിട്ട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാൽ മതി ഞാനത് ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്കതിനുള്ള സൗകര്യമുണ്ടാക്കി തരും കാര്യം ഒരച്ചന് മാത്രമേ കുമ്പസാരിപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അച്ചൻ്റെ പ്രധാന ഒരു കാര്യം അതാണ് കുമ്പസാരിപ്പിക്കുകയെന്നുള്ളതാണ് അപ്പോൾ ഒരാൾ വരുമ്പം എപ്പം വേണമെങ്കിലും അതിനുള്ള സൗകര്യം ഞാനുണ്ടാക്കി തരാം കേട്ടോ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട ഓക്കെ ഓക്കെ മ്മ് ആ ആ ആ ആ ഉണ്ട് ഞാൻ ഈ കൊല്ലവേ നമുക്ക് പാതിരാ കുറുബാന നമുക്ക് രാത്രി പതിനൊന്നേ മുക്കാലിന് തുടങ്ങുന്നു ഏഹ് അതോടുകൂടിയാണ് അതോടുകൂടിയാണ് നമ്മുടെ പിറവിയിടൽ പരിപാടികളെല്ലാം ഏഹ് ആ പാട്ട് കുറുബാനയും പ്രദക്ഷിണവും അത് നമ്മൾ എല്ലാം സാധാരണ പോലെയെല്ലാ കൊല്ലത്തെയും പോലെ തന്നെ അതുണ്ട് അതിന് ശേഷം പിന്നെ ഇത് പാതിരാ കുറുബാനക്ക് വരാൻ വയ്യാത്ത പ്രായമായവരും കുഞ്ഞുങ്ങളും മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടീട്ട് നമ്മളെ നമ്മളെ ഏകദേശം ഏഴ് മണിക്ക് പിറ്റേ ദിവസം വെളുപ്പിന് ഏഴ് മണിക്ക് പാതിരാ കുറുബാന ഇവിടെ വെയ്ക്കുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല കാര്യം പ്രായം ഉള്ളവർക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ പാതിരായ്ക്ക് വരാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഭഗവാൻ്റെ കഴിവുള്ളവരെല്ലാം രാത്രിയിലെ പാതിരാ കുറുബാനയ്ക്ക് തന്നെ വരുന്നതാണ് നല്ലത് കേട്ടോ ആ അത് ഓ ആ ഓക്കെ ഓക്കെ ആ നമ്മുടേയും പിന്നെ ഉണ്ണി ഈശോയെയെടുത്ത് കൊണ്ട് നമ്മളെ പ്രദക്ഷിണമുണ്ട് പള്ളിക്ക് ചുറ്റും ഗ്രൗണ്ടിൽക്കൂടെ പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണമുണ്ട് നമുക്കറിയാം നമുക്കുള്ള ആട്ടിടയന്മാരെയും പിന്നെ തീ കാഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ പഴയ കുരുത്തോല വെട്ടി നമ്മൾ തീ കത്തി പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് നടുക്ക് തീ കത്തിച്ചിട്ട് അതിന് ചുറ്റും അവിടെ ആ ചുറ്റും നമ്മുടെ നമ്മളീ കൊല്ലം നമ്മൾ പ്രദക്ഷിണം നടത്തുന്നുണ്ട് കേട്ടോ രാത്രിയിലത്തെ പ്രദക്ഷിണം രാത്രിയിലത്തെ കുറുബാനയ്ക്ക് മാത്രം ആ തിരി വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരി പിടിച്ചുകൊണ്ടുള്ള കുറുബാന പ്രദക്ഷിണമല്ല ഈ സമയത്ത് നടത്തുന്നത് ഏ ആ പിന്നെ ആ പിന്നേ എന്നാ ഇന്ന് രണ്ടാമത്തെ കുറുബാനയ്ക്ക് പ്രദക്ഷിണമുണ്ടാവില്ല കേട്ടോ ആദ്യത്തെ കുറുബാനയ്ക്ക് മാത്രമേ പ്രദക്ഷിണം ഉണ്ടാകുള്ളൂ കേട്ടോ ആ ആ ആ ആ അപ്പം പിന്നെ ആയിക്കോട്ടെ ഇത് വളരെ സന്തോഷം വളരെ സന്തോഷം എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ ക്രിസ്മസിൻ്റെ പരിപാടിയെ കുറിച്ചെന്തെങ്കിലുമൊരിത് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴായാലും ചോദിച്ചോ കേട്ടോ നമുക്ക് ഭംഗിയാക്കി നടത്തണം നിങ്ങളുടെയെല്ലാവരുടെ എല്ലാവരുടെ സാന്നിധ്യം സഹകരണവുമുണ്ടാവണം കേട്ടോ ഓക്കെ ഓ ഓക്കെ ഓ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ